ഹലോ ഞാനൊരൂ ഓ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിരുന്നു ആ നിങ്ങളുടെ ഇതിനകത്ത് അപ്പം എനിക്കൊര് അബദ്ധം പറ്റിയിരുന്നു എൻ്റെ അഡ്രസ്സ് കൊടുത്തത് മാറിപ്പോയി വിലാസം അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വിലാസമാണ് കൊടുത്തിരുന്നത് പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് അവധിയാണ് രണ്ട് മാസത്തേക്കവധിയാണ് അപ്പം അതുകൊണ്ട് ആ ഒര് വിലാസത്തില് വന്നാല് അവിടെ ആളുണ്ടാവില്ല അത് മാത്രല്ല ഞാൻ ആൾറെഡി പേയ്മെന്റ് കഴിഞ്ഞതാണ് അപ്പോൾ എനിക്ക് ആ വിലാസം മാറ്റി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനിനി ലഭ്യമാകുമോ എന്നറിയാനാണ് ഞാൻ വിളിച്ചത് ലഭ്യമാണെങ്കിൽ ഞാൻ എങ്ങനെയാണത് ചെയ്യണ്ടത് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞുതരണം ഞാനിപ്പോൾ എടുത്തിട്ട് ഓൺലൈനിൽ ഞാൻ നോക്കുമ്പോൾ എനിക്കത് ചെയ്യാനുള്ള ഓപ്ഷൻസ്സോ ക്ലിക്കോ ഒന്നും അതിനകത്ത് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അപ്പോൾ അത് മാറ്റാനുള്ളൊര് ഇതുണ്ടെങ്കിൽ അത് മാറ്റണം അതല്ല മാറ്റാനില്ലായെങ്കില് ഞാനത് ക്യാൻസൽ ചെയ്യുവാണ് ക്യാൻസൽ ചെയ്യുവാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട് അപ്പോൾ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പാണ് നിങ്ങളോടൊന്ന് ചോദിച്ചിട്ട് സജഷൻ ചോദിച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കെട്ടോ അപ്പോൾ അതിനേ പറ്റിയൊന്ന് പറഞ്ഞ് തരാമോ